നമ്മുടെ പിരിമുറുക്കങ്ങൾ മാറ്റാനുള്ള നല്ലൊരു വഴിതന്നെയാണ് കായിക വിനോദങ്ങള് അതായത് നമ്മൾക്കിഷ്ടമുള്ള എന്ത് കളിയായാലും അതിപ്പോൾ ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും എന്തുതന്നെ കളിയായാലും നമ്മളത് കളിക്കുമ്പോൾ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ പിരിമുറുക്കങ്ങളും നമ്മള് മറക്കും അല്ലെങ്കിൽ മാറും ഉദാഹരണത്തിനിപ്പോൾ നമ്മള് ഫുഡ്ബോൾ കളിക്കുകയാണ് ഫുഡ്ബോൾ കളിക്കുമ്പോൾ നമ്മള് നമ്മുടെ പുറമെ ഉള്ള ഒരു ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ടാവില്ല നമ്മള് മൊത്തം നമ്മുടെ മനസ്സ് മൊത്തം ആ കളിയിലിലായിരിക്കും നമ്മള് നമ്മുടെ കൂട്ടുകാരുമൊത്ത് ഒരു സന്തോഷത്തോടെയായിരിക്കും ആ കളി അപ്പോൾ നമ്മുടെ മറ്റുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസിലുണ്ടാവില്ല അപ്പോൾ നമ്മുടെ പിരിമുറുക്കങ്ങളും എല്ലാവിധ ടെൻഷനും എല്ലാം നമ്മൾക്ക് മാറ്റാൻ കഴിയും അതായത് നമ്മുടെ മനസ്സ് മൊത്തം കളിയിലായിരിക്കും അപ്പോൾ നമ്മൾ കളി ആസ്വദിച്ചുള്ള കളിയായിരിക്കും അപ്പോൾ നമ്മളുടെ പിരിമുറുക്കങ്ങളോ പരമാവധി കുറയ്ക്കാൻ കായിക വിനോദങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്